അ അ പറഞ്ഞോളു അ ഓക്കെ എമൗണ്ട് വേണായിരിക്കും അല്ലെ ഗോൾഡ് ലോണാ ഓക്കെ നമ്മളിപ്പോൾ പവന് മുപ്പത്തി ഏഴ് ഇരുന്നൂറ് വെച്ചാണ് കൊടുക്കുന്നത് അപ്പോൾ നാല് പെർസെൻ്റെജ് ആണ് നമുക്ക് ഇൻറ്റ്റസ്റ്റ് വരുന്നത് നമുക്ക് നാല് കൊല്ലം വരെ ആണ് മാക്സിമം ലോണ് കിട്ടുന്നത് നമുക്കൊരു വൺ വീക് കൊണ്ടെ റെഡി ആവുള്ളു കാരണം ഇവര് പേപ്പർ ഒക്കെ അയച്ചുകൊടുത്ത് ചെറിയ ഡിലെ ഉണ്ടാവും പ്രൂഫ് ഇപ്പോൾ മാഡത്തിൻ്റെ എന്തേലും ഐഡി കാർഡും പാൻ കാർഡും മതി നമുക്ക് ഇതു എന്ത് എന്തിനാന്ന പറഞ്ഞെ അ ഓക്കെ ഓക്കെ ടൈലറിങ്ങ് ഷോപ്പല്ലെ നമുക്ക് ഗോൾഡ് വെച്ചിട്ട് അതിനുള്ളത് മതിയാവായിരിക്കുംലെ അതെ ബന്ധപ്പെടാം നമുക്കു വേണെങ്കിൽ സ്ഥലത്തിൻ്റെയൊ അങ്ങനെ എന്തേലൊക്കെ വെക്കുക ആണെങ്ങി അല്ലാണ്ട് ലോൺ നമ്മള് ചെയ്ത് തരുന്നുണ്ട് അ ഓക്കെ മാഡം എന്തായാലും ബാങ്കിലേക്ക് ഒന്ന് വരാൻ പറ്റില്ലെ മാഡത്തിന് രണ്ട് ദിവസത്തിന് ഉള്ളിലാ മാഡത്തിൻ്റെ പേരെന്തായിരുന്നു അർച്ചന ഓക്കെ ഓക്കെ എവിടെയാണ് ഇത് തുടങ്ങുന്നത് ടൗണിൽ തന്നെ ആണ് ആധാറും നികുതി ചീട്ടും കൂടെയൊന്ന് കൊണ്ടുവരാൻ പറ്റുമോ മാഡത്തിൻ്റെ സിബിൽ സ്കോറും കാര്യങ്ങളും കൂടെയൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ടാണ് അ ഓക്കെ താങ്ക് യു വന്നാ മതി ബാങ്കിലേക് കേട്ടൊ